ഇപ്പോൾ ചെറുകിട സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മള് കുറെ നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ പറയാൻ ഉണ്ട് നമുക്ക് അമ്മമാർക്ക് വേണ്ടി തയ്യലിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്താൽ കുറച്ച് അമ്മമാർക്ക് തയ്യൽ മെഷീൻ കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു തയ്യൽ യൂണിറ്റ് തുടങ്ങാൻ പറ്റും അതുപോലെ നമ്മള് ഒരു ചെറിയ പച്ചക്കറി തോട്ടം പോലെ സെറ്റപ്പ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മുടെ കൃഷിഭവൻന്നൊക്കെ ഫ്രീയായിട്ട് വിത്തുകളും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് കുറച്ച് അമ്മമാര് ഒരു അമ്മമാരുടെ ഒരു കൂട്ടം ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചു സ്ഥലം കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവര് അവിടെ പോയിട്ടൊരു പച്ചക്കറി കൃഷി തുടങ്ങിയാൽ അത് ഒരു ചെറിയ സംരംഭം ആണ് പിന്നെ അതുപോലെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുറച്ച് ആൾക്കാരെ കൂടിയിട്ട് ഒരു ചെറിയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മാണം അതുപോലെ മെഴുകുതിരി നിർമ്മാണം പിന്നെ ചന്ദന തിരിയുടെ അങ്ങനെത്തെ ചെറിയ സോപ്പ് അങ്ങനെത്തെ കുറേ ചെറിയ ചെറിയ യൂണിറ്റുകൾ ഇടാൻ പറ്റും പിന്നെ നമുക്ക് ഈ ഹാൻഡ് മെയ്ഡ് അതായത് കൈത്തറി പരിപാടി അത് കുറച്ചു പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു സംരംഭമാണ് ഇതിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സംരംഭം അല്ലെങ്കിൽ പ്രത്യേക വസ്തുത അല്ലെങ്കിൽ ന്നെ ആകർഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു കൂട്ടായ്മ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പം അവർക്ക് അവർക്ക് ഒരു ചെറിയ ഒരു വരുമാന മാർഗമായി അവർക്ക് ആരുടെയും അവർക്ക് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ നടത്താനുള്ള ചിലവും കാര്യങ്ങളും ഒക്കെ അതിൽ നിന്ന് തന്നെ അവർക്ക് കണ്ടു പിടിക്കാൻ പറ്റും അങ്ങനെ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറെ ഇപ്പോൾ എന്താച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്തെങ്കിലും അവരെ ജീവിതത്തിൽ ആവശ്യങ്ങൾ കാര്യങ്ങള് ഇപ്പോൾ മക്കളുടെ കല്യാണം അങ്ങനത്തെ കാര്യങ്ങള് വരുമ്പോൾ ഈ പൈസ ഇങ്ങനെ ചെറുതായിട്ട് കൂട്ടിക്കൂട്ടി വച്ചിട്ട് അവർക്കത് വലിയൊരു അവശ്യത്തിന് ഉപയോഗിക്കാനും പറ്റും